എൻ്റെ പക്കലുള്ള തുന്നൽ സാധനം എന്ന് പറയുമ്പോൾ എൻറ്റേൽ മിഷ്യൻ തയ്യൽ മിഷ്യനൊണ്ട് അതിനുള്ള നൂലുകൾ ഒക്കെയുണ്ട് ഇതിൻ്റകത്ത് തയ്യൽ മിഷീനും തയ്യൽ മിഷീനും നൂലും തയ്യൽ മെഷ്ന് പ്രത്യേകിച്ച് യന്ത്രങ്ങളൊന്നും ആവശ്യമില്ല തയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതിന് ഒരു മോട്ടർ പിടിപ്പിക്കുവാണെങ്കിൽ നമുക്ക് ചവിട്ടുന്നത് നമുക്ക് പരമാവധി ഒഴിവാക്കാം കാലിനുള്ള പ്രശ്നങ്ങളൊക്കെ വരാതെ നമ്മളെ സഹായിക്കും പിന്നെ അതുപോലെ തന്നെ നൂല് നൂല് നല്ല നല്ല ലിനൻ നൂലുകൾ മേടിക്കാൻ കിട്ടും ആ നൂലുകൾ മേടിച്ച് തുന്നുവാണെങ്കിൽ നൂലെളുപ്പത്തിൽ പൊട്ടാതിരിക്കാനും തയ്യൽ സുഖകരമാക്കാനും നമുക്ക് സാധിക്കും പിന്നെ എനിക്ക് കൈതയ്യൽ തയ്ക്കുന്ന തയ്ക്കാൻ ഈ ത്രെഡ് വർക്കുകൾ ചെയ്യാനുള്ള സ്റ്റാൻ്റ്കളും സൂചിം നൂലും എന്നിവ നമ്മുടെ കയ്യിലുണ്ട് സൂചിയും നൂലും ഉപയോഗിച്ച് നമുക്ക് നൂല് ഈ മുത്തുകൾ കോർക്കാനും അത് ഉറപ്പിച്ച് നിർത്താനും ഉള്ള നല്ലപോലെ ഫിറ്റ് ചെയ്ത് വെക്കാനുമുള്ള എന്തെങ്കിലുമൊരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും പിന്നെ തയ്യൽ മെഷീൻ ചവിട്ടുമ്പോൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് കാലിനനുഭവപ്പെടും കുറെയൊക്കെ തയ്ച്ച് കഴിയുമ്പം അതിൻ്റെ മോട്ടറ് ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കരൻറ്റേൽ ഫിറ്റ് ചെയ്താൽ നമുക്ക് ചവിട്ടണ്ട ആവശ്യം ഇല്ലാതാവും പിന്നെ എൻ്റെ കയ്യിലുള്ള തുന്നലിന് നെയ്ത്തിനും ആയിട്ടുള്ള വേറെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കൈത്തയ്യൽ തയ്ക്കും സൂചിയും നൂലും ഉപയോഗിച്ച് കൈത്തയ്യല് തയ്ക്കും എങ്കിൽ കൂടിയും മിഷേനുള്ളതാണ് നമുക്ക് എളുപ്പം തയ്ക്കാനും തുന്നാനുമൊക്കെ പിന്നെ കമ്പളി പോലുള്ള വസ്ത്രങ്ങളൊന്നും ഞാൻ തയ്ക്ക്കേല അതോണ്ട് അതിൻ്റെ യന്ത്രങ്ങളൊന്നും അതിനെപ്പറ്റിയെനിക്ക് അറിയത്തില്ല പിന്നെ മിഷ്യനുപയോഗിച്ച് നമ്മൾ തയ്ക്കുമ്പോൾ ആ തയ്യലിൽ മിഷ്യൻ സൂചി നമുക്ക് ധാ വിപണിയിൽ ലഭ്യമാണ് അത് ഉപയോഗിച്ച് നമുക്ക് തയ്ക്കാൻ സാധിക്കും പിന്നെ കൂടുതൽ സാധനങ്ങൾ വാങ്ങേണ്ടതിന് മെച്ചപ്പെടാൻ കൂടുതൽ സാധനങ്ങൾ ആ നമുക്ക് വാങ്ങേണ്ടത് ആവശ്യമാണ് അതിനുള്ള പൈസയും കൂടി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് പിന്നെയൊരു തയ്യൽക്കട ഇടുവാന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ മെച്ചപ്പെടാൻ ത്താൻ സാധിക്കും തയ്യൽ യൂണിറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ തയ്ക്കാൻ പഠിപ്പിക്കും അത് അത്കൊണ്ട്തന്നെ കൂടുതൽ മിഷിന്കളും നമുക്ക് വാങ്ങേണ്ടതായിവരും അതിനുള്ള സാമ്പത്തികം ഉള്ളവരാണെന്ന് ഉണ്ടെങ്കിൽ തയ്യൽ യൂണിറ്റിട്ട് നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും